ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ നമുക്ക് ഇപ്പം ഭവന വായ്പ അങ്ങനത്തെ വായ്പകളാണ് കൂടുതലായിട്ടും നമുക്ക് കിട്ടുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ നഗരസഭാ കാര്യാലയങ്ങളിലൊക്കെ നാന്നൂറ് സ്ക്വയര് ഫീറ്റ് അങ്ങനത്തെ രീതിയിലാണ് ഭവന വായ്പയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് നാലു ലക്ഷം രൂപയാണ് അതായത് ഭവനവായ്പയ്ക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊടുക്കുന്നത് അപ്പം അത് ഓരോ കാര്യങ്ങളൊക്കെയായിട്ടാണ് വരുന്നത് പിന്നെ വീടുകള് വാടക അതിന്റെ വാടകയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാകും അപ്പോൾ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ ഭവന വിപണിയിൽ പല രീതിയിലുള്ള മുന്നേറ്റങ്ങള് കാഴ്ച വെയ്ക്കാന് വേണ്ടിയിട്ട് കോഴിക്കോടിനു സാധിച്ചിട്ടുണ്ട് കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പം റിയല് എസ്റ്റേറ്റ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കാരണം നമുക്ക് ടൗണില് ഒരു കടയെടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റും വാടകയും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ പിന്നേ അപ്പാര്ട്ട്മെന്റുകൾ അങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിലുണ്ട് ഇപ്പം ഹൈ ലൈറ്റ് മാളില് ആണെങ്കില് തന്നെ അതിന്റെ അവിടെ തന്നെ ഇഷ്ടംപോലെ ഫ്ലാറ്റുകൾ കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അതിനകത്ത് ഒരു അപ്പാര്ട്ട്മെന്റ് എടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള ക്യാഷും കാര്യങ്ങളും ഒക്കെയാകും